ഞങ്ങള് കുട്ടിയായിരിക്കുമ്പോള് ഞങ്ങളുടെ വീട്ടിൻ്റെടുത്താണ് ഉള്ളൂർ സ്മാരകം അവിടുന്ന് ചെറിയ ചെറിയ പുസ്തകങ്ങളെടുത്ത് ഞങ്ങളെ വീട്ടിലൊരു ഒരു ഫ്രണ്ട് പോലൊരു പയ്യനുണ്ടായിരുന്നു അവൻ വൈകുന്നേരം വൈകുന്നേരങ്ങളില് ഉള്ളൂർ സ്മാരകത്തില് ചെന്ന് ബുക്ക് നോവലുകളെടുത്തോണ്ട് വരും കുഞ്ഞ് കുഞ്ഞ് നോവലുകൾ വായിച്ച് തുടങ്ങിയാണ് കുറച്ച് വലിയ നോവലിലേക്ക് പോയത് അങ്ങനെ കുറച്ച് പുസ്തകങ്ങളെല്ലാം വായന കഴിഞ്ഞതിനുശേഷം എം ടി വാസുദേവൻ നായരുടെ നോവലുകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടാം ഊഴൊക്കെ വായിച്ചു കർണ്ണൻ്റെ കർണ്ണൻ എന്ന എം ടി വാസുദേവൻ നായരുടെ ബുക്ക് വായിക്കാൻ വളരെ അധികം ഉത്സാഹം തോന്നി അങ്ങനെ അത് കണ്ടത്താനായിട്ട് നോക്കിയപ്പോള് അന്നവിടെയൊന്നും ആ പുസ്തകം കിട്ടാനില്ല അപ്പോള് ഞങ്ങൾ ലാംഗ്വേജ് ഇൻസ്റ്റിട്യൂട്ടിലെ ഡയറക്ടറായിരുന്ന എം ആർ തമ്പാൻ ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻറ്റടുത്ത് ഞാനിങ്ങനെ പറയുകയും അദ്ദേഹം എനിക്കാ ബുക്ക് കൊണ്ടത്തരികയും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആ ബുക്ക് വായിക്കുകയും ഇപ്പോഴും എനിക്കാ ബുക്കിനോട് എന്തോ ഒരു ആകൃഷ്ടത തോന്നുന്നുണ്ട് അത് വായിക്കാൻ വളരെ ഇഷ്ടമാണ് എപ്പോള് കിട്ടിയാലും ഞാനത് വായിക്കും മഹാഭാരതത്തിലെ കർണ്ണൻ എന്ന കഥാപാത്രത്തെ എനിക്ക് മനസ്സിൽ വളരെ അധികം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ബുക്കിനോടെനിക്കിത്രയധികം താൽപ്പര്യം തോന്നുന്നത് അങ്ങനെ ഞാനാ ബുക്ക് ബുക്ക് വായന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു വലിയ പുസ്തകങ്ങളല്ലെങ്കിലും ചെറിയ ചെറിയ പുസ്തകങ്ങളിപ്പോള് കുറച്ച് പ്രായമായതുകൊണ്ട് വലിയ പുസ്തകങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാലും ചെറിയ ചെറിയ പുസ്തകങ്ങളെല്ലാം വായിച്ച് ഇഷ്ടപ്പെട്ട കഥകളും നോവലുകളുമൊക്കെ വായിക്കാറുണ്ട് ആ രീതിയിൽ പോണു